ഹലോ ബർക്കാത് ഹോട്ടലല്ലെ ഇത് ഫുഡ് ഓഡർ ചെയ്തിട്ട് ഞാ ഏഴു മണിക്ക് കൊണ്ടു വരാൻ പറഞ്ഞിട്ട് ഇതു വരെ എത്തിയിട്ടില്ലല്ലൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫുഡ് ഏൽപ്പിച്ചിട്ടെ സമയം കുറേ വൈകി ഏതായാലും സാധനമെത്തി പക്ഷേ ഫുഡ്ഡൊക്കെ വളരെ മോശമായിരുന്നു അളവും കുറവ് രുചിയും കമ്മി ഒരു സത്ക്കാരത്തിനേൽപ്പിച്ച ആയിരുന്നില്ലെ മന്തി അൽഫാം പിന്നെ ചി ചിക്കൻ ചില്ലി മറ്റും ഒക്കെ ഇതൊരു സത്ക്കാരപ്പരിപാടിക്ക് ഏല്പ്പിച്ചതായിരുന്നു രാ അൽഫാമൊക്കെ ഭയങ്കര ഒരു സുഖം കിട്ടിയില്ല ഏ അപ്പം ഇനി ഒന്നു ശ്രദ്ധിക്കൂ നിങ്ങൾ